എനിക്ക് കൂടുതലും പണ്ടത്തെ പാട്ടുകളാണ് ഞാൻ കേൾക്കാറ് അപ്പോൾ പിന്നെ കുറെ പാട്ടുകളുണ്ട് എനിക്ക് എപ്പഴും ഇങ്ങനെ പാട്ട് കേൾക്കാനും ഞാൻ പിന്നെ എന്താന്ന് വച്ചാൽ പലരീതിയിലുള്ള പാട്ടുകൾ ഞാൻ ആസ്വദിക്കാറുണ്ട് മലയാളം ഹിന്ദി കൊറിയൻ ഇംഗ്ലീഷ് അങ്ങനെ ഉള്ള എല്ലാ വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് അതിൽ ഞാൻ എപ്പോഴും എന്താ എപ്പോഴും മൂളാൻ ആഗ്രഹിക്കുന്ന പാട്ടെന്നു പറയുമ്പോൾ ഞാന് എന്താ പറയാ പണ്ടത്തെ ഒരു പാട്ട് ആയിട്ടുള്ള ഈറൻ മേഘം പൂവും കൊണ്ട് എന്ന് പറഞ്ഞ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അത് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഇപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ക്ലാസിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അതേ ഇങ്ങനെ ക്ലാസ്സിൽ ആരും ഇല്ലാത്ത സമയത്താണേങ്കിലും അതേ ഞാൻ എന്തേലും നോട്ട് എഴുതുവാണേങ്കിൽ തന്നെ അതേ ഈ പാട്ടും വയ്ക്കാറുണ്ട് ഞാൻ ഇതിന് എപ്പോഴും ഇപ്പളും എനിക്ക് പാടാൻ ആണെങ്കിലും അതേ പാടാൻ അറിയില്ലെങ്കിലും പാടാൻ ആണെങ്കിലും അതേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പാട്ടാണ്